മലയാള ഭാഷയുടെ ഒരു ആ വ്യക്തമായ അഹങ്കാരമാണ് പഴഞ്ചൊല്ലുകള് പഴഞ്ചൊല്ലുകളെന്നത് വാമൊഴിയാണ് ഒഴുക്കുകളിലൂടെ സംസാരിക്കുന്ന ഒരു ചൊല്ലാണ് പഴഞ്ചൊല്ല് ഉരുളക്കുപ്പേരി ഉരുളക്കുപ്പേരി എന്ന് പറഞ്ഞാൽ ഒരു മറുപടിക്ക് തിരിച്ച് അതേപോലെ മറുപടി കിട്ടുക അതാണ് ഉരുളക്കുപ്പേരി പിന്നെ ഞെട്ടില്ല വട്ടയില്ല കാണം വിറ്റും ഓണം ഉണ്ണണം ഇതെല്ലാം ഒരു രീതിയുടെ ഭാഗമാണ് അത് നമ്മുടെ ഇല്ലായ്മയിലും സന്തോഷത്തിലുമെല്ലാം കൊള്ളുന്ന ഒരുപാട് ദ്വയാർത്ഥങ്ങൾ വരുന്ന പദങ്ങളാണിതെല്ലാം ഞെട്ടില്ല വട്ടയില ഉരുളക്കുപ്പേരി കാണം വിറ്റും ഓണം ഉണ്ണണം പിന്നേ മുട്ടത്തി മുറ്റത്തെ ചെപ്പിന് അടപ്പില്ല ഇതിനെല്ലാം ഒരു ഉത്തരങ്ങളുണ്ട് ഒരു പ്രയോഗങ്ങളുണ്ട് ആ പ്രയോഗങ്ങൾ മനസ്സിലാക്കാൻ ഒരു പഴഞ്ചൊല്ലുകൾ എന്ന് അറിയപ്പെടുന്നു അഞ്ച് ഷെല്ലുകളുടെ നാടാണ് അഞ്ചൽ അതുപോലെ ഓരോ ചൊല്ലുകളും പഴഞ്ചൊല്ലുകളാണ് വാമൊഴികളാണ് ആ വാമൊഴികളെ പഴഞ്ചൊല്ലുകളെന്നറിയപ്പെടുന്നു വളഞ്ഞ വഴി സ്വീകരിക്കാതെ നേരായ വഴിയിലിരിക്കുന്നതാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയാനാവില്ല കാരണം വളഞ്ഞ വഴികളാണ് പഴഞ്ചൊല്ലുകൾ വളഞ്ഞ് തിരിഞ്ഞ് ഒരു ഉത്തരത്തിലെത്തിക്കുന്ന പ്രയോഗങ്ങളാണ് പഴഞ്ചൊല്ലുകൾ പഴഞ്ചൊല്ലുകൾ മലയാള ഭാഷയുടെ സ്വകാര്യ അഹങ്കാരമാണ്